ഇന്ത്യൻ തൊഴിൽ വിപണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊറോണ വന്നതിന് ശേഷം വളരെയധികം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഒരു തകർച്ച നമ്മളെ സമ്പദ്ഘടനയെ വരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇന്ത്യ വെല്ലുവിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ ഇന്ത്യൻ തൊഴിൽ വിപണി എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം ചെറുകിട വ്യവസായങ്ങളും വൻകിട വ്യവസായങ്ങളും നോക്കുമ്പോൾ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ കൂടുതല് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറഞ്ഞ മുട മുതൽ മുടക്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വിറ്റെഴിക്കുന്നത് വഴി നമ്മള്ക്ക് ഇന്ത്യൻ വിപണിയെ ഒരു പരിധി വരെ പിടിച്ചുനിർത്താനായിട്ട് സഹായിക്കും അതുപോലെതന്നെ ചെറുകിട വ്യവസായികളെ സഹായിക്കുന്നത് മുഖാന്തരം അവർക്ക് ഒരു തൊഴിൽ വരുമാനം കിട്ടുകയും ദാരിദ്യനിർമാർജനം ചെയ്യുന്നതിനും സാധിക്കും പിന്നെ നമ്മുടെ തൊഴിൽ മേഖല എത്രത്തോളം വികസിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുപോലെ പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ സ്കൂ സ്കൂളുകളിൽ തന്നെ അവർക്ക് തൊഴിലതിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്നത് മുഖാന്തിരം അവർക്ക് തൊഴിലില്ലായിമ എന്ന ഒരു പ്രശ്നത്തിൽ നിന്നും കൂടുതലായിട്ടും മോചനം നേടുവാനും അവര് അവരുടേതായ സ്വയം പരിയാപ്തയിലേക്ക് പോകുന്നതിനും സാധിക്കും അത് മുഖാന്തരം ഇന്ത്യൻ വിപണിയെ വളരെയധികം നമുക്ക് മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യയെ വെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ നിർമാർജനം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചെറു ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുകയും അവർ മുതിർന്ന പൗരന്മാരായിത്തീരുമ്പോൾ ഏതിലാണോ താല്പര്യമുള്ളത് ആ ട്രെയ്ഡിൽ അവര് പ ജോലികൾ ചെയ്യുകയും അവരവരുടേതായ രീതിയിലുള്ള പുരോഗമനങ്ങൾ നടക്കുകയും ചെയ്യും അത് മുഖാന്തിരം നമ്മുടെ ഇന്ത്യയെ നേരിടുന്ന തൊഴിലില്ലായ്മ ഏറ്റവും തൊഴിലില്ലായ്മ എന്ന വെല്ലുവിളിയെ നമുക്ക് ചെറുത്തുനിൽക്കാനായിട്ട് സാധിക്കും